സാറേ ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിലെ മേലുകര വാർഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ എറണാകുളത്തേക്ക് മാറിയത് അപ്പോൾ ഇവിടെ പുതിയ കണക്ഷൻ വൈദ്യുതി കണക്ഷൻ എടുക്കാൻ വേണ്ടീട്ട് എനിക്ക് എൻ്റെ പഴയ ഇതുവരെ ഞാൻ അടച്ച് തീർത്ത കരണ്ട് ബില്ലിൻ്റെ ഒരു സാക്ഷ്യപത്രം ആവശ്യമാണെന്ന് ഇവിടെ പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ മുന്നോട്ടുവയ്ക്കുന്നത് എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഞാൻ അടച്ച ബില്ലിൻ്റെ ഒരു സാക്ഷ്യം എനിക്ക് ശരിയാക്കി തരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എൻ്റെ ആ കൺസ്യൂമർ നമ്പറെന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ട് ആറ് നാല് മൂന്ന് അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ആണ് അപ്പോൾ ഈ രണ്ട് വർഷത്തെ ഞാൻ അടച്ച ബില്ലിൻ്റെ പകർപ്പ് എനിക്ക് എൻ്റെ പുതിയ അഡ്രസ്സിലേക്ക് അയച്ചുതരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ എൻ്റെ അഡ്രസ്സും ഇത് ഇതിൻ്റെ ഈ മെസ്സേജിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ട് നന്ദി